തീർച്ചയായും ഫോട്ടോഗ്രാഫിയെന്നാ തൊഴിലാട്ട് ഉപയോഗിക്കുന്നതിൽ യാതൊരു വിധ തെറ്റുമില്ല അത് വളരെ നല്ലൊരു ഒരു പ്രോഷനായിട്ട് വേണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഘടകമാണ് ഫോട്ടോഗ്രാഫി എന്ന് നമുക്ക് അറിയാം നമ്മൾ ഓർമ്മകൾ ഒപ്പി എടുക്കുന്നൊരു ഘടകമാണ് ഫോട്ടോസ് അത് വളരെ മികച്ച രീതിയിൽ നല്ല വൃത്തിയും വെടിപ്പുമായിട്ടും അല്ലേൽ നല്ല ക്ലാരിറ്റിയോടും നല്ല വ്യക്തയോടും കൂടി എടുക്കുന്നത് വളരെ മികച്ചൊരു കഴിവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞാലും ഈ പന്ന ഫോട്ടോഗ്രാഫിയെന്ന് പറഞ്ഞൊരു തൊഴിലായിട്ട് എടുക്കുന്നതിന് ഒരു മോശമില്ല വളരെ നല്ലൊരു പോഷ്നാണ് അതെപോലെ തന്നെ വിവാഹ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഈ പറയുന്ന വളരെ മെച്ചപ്പെട്ടൊരു ഘടകമാണ്